ജില്ലയിൽ സാധാരണയായിട്ടുള്ള ആളുകൾക്ക് വിദ്യഭ്യാസം തൊഴിൽ തൊഴിൽ മൊത്തത്തിലുള്ളതാണ് വിദ്യാഭ്യാസം തൊഴിലിൻ്റെയും പ്രശ്നങ്ങൾ എന്നാലും വിദ്യാഭ്യാസത്തിൻ്റെ ഇനിയും കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് കൂടുതലായിട്ടും തൊഴിലിൻ്റത് ചില വിദ്യാഭ്യാസം നേടിയിട്ടും നമുക്ക് ആ തൊഴിലിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം യുവാക്കൾക്ക് ഇടയിൽ യൂവജനങ്ങൾക്ക് ഇടയിൽ യുവാക്കൾക്ക് എന്ന് അല്ല യുവജനങ്ങൾക്ക് ഇടയിൽ വലിയ പ്രശ്നം തന്നെയാണ് അത് എന്താ വെച്ചാൽ നമ്മൾ വിദ്യാഭ്യാസം എങ്ങനെയൊക്കെയോ നേടി എടുക്കുന്നു അത് ഏത് മനുഷ്യനെയും എങ്ങനെയും വേ പല രീതിയിലും ഉണ്ട് പല സാഹചര്യത്തിലൂടെയും വിദ്യാഭ്യാസം നേടി എടുക്കാം പക്ഷെ ആ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ജോലി ചെയ്യാനാണ് പ്രശ്നം പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെ കൂടുതലായിട്ട് കാണുന്നതാണ് ജില്ലാ വ്യത്യാസമായി വന്ന് ആ ജില്ല കുറച്ച് നല്ലൊരു മേഖലയിലേക്ക് എത്തുന്നതിൻ്റെ തന്നെ സോ അതിന് അനുസരിച്ച് തൊഴിൽ മേഖലയിലും യുവജനങ്ങൾക്കും ഒരു വികസനം എന്ന രീതിയിൽ വരുന്നില്ല അത് ഈ സർക്കാർ ചുമതലകൾ കുറച്ചും കൂടിയും പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ടല്ലോ ജില്ലകളെ കേന്ദ്രികരിച്ചല്ലേ നോക്കേണ്ടതുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയാനും പറ്റില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജില്ലാ അത്യാവശ്യം സമത്വത്തിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസം ഉള്ളവന് ജോലിയില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്